ഹലോ ആ ആ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഓൾ കേരള ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഓഫ്റോഡൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള വണ്ടി

ആ ഒക്കെ അപ്പോൾ എത്രയാണ് എമൗണ്ട് ഒക്കെ വരിക ആ ഒക്കെ ഓഫ്റോഡ് പോവാൻ പറ്റിയ അതിൽ റേറ്റ് കൂടുമായിരിക്കും അല്ലെ ആ ഒക്കെ ആ ആ ഇപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചാറ് പേരാണ് വരുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി വണ്ടി ഉണ്ടാകുമോ ആ ഒക്കെ അപ്പം രണ്ടു പേർക്ക് ഹിമാലയൻ ആണ് വേണ്ടത് ആ ബാക്കി ഡൊമിനോ എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ പത്ത് ദിവസത്തെ ട്രിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്

ആ ചിലപ്പം ഡേയ്റ്റ് കുറച്ച് കൂടുമായിരിക്കും ആ അതിപ്പം സ്ഥലത്തിന് അനുസരിച്ചാണോ എമൗണ്ട് അതോ ദിവസത്തിൻ്റെയോ ആ ഒക്കെ ആ അഞ്ച് വണ്ടി അഞ്ചാറ് വണ്ടി ഉണ്ടാവില്ലേ

ആ ഇതെവിടെ സ്ഥലം എവിടെയാണ് വരുന്നതെന്ന് പറയുമോ

ആ ഈ ഈ ഈ നമ്പറേ ഉള്ളൂ ഓഫീസ് നമ്പറ്

എല്ലാവരുടെയും വേണോ അതോ ഒരാളുടെ മതിയോ ആ ഒക്കെ ഒക്കെ വേറെ എന്തെങ്കിലും പ്രൂഫ് വേണോ ആ ഒക്കെ അപ്പോൾ എമൗണ്ട് എങ്ങനെയാണ് ആ അങ്ങനെ അല്ല ചോദിച്ചത് പേയ്മെൻ്റ്

ആ ഒക്കെ ഒക്കെ ആ അപ്പം ഒരു രണ്ട് ഹിമാലയൻ ബാക്കി ഒര് രണ്ട് ഡൊമിനോറും ആ വേണ്ടിവരും പിന്നെ ഒരു പൾസർ ആയാലും കുഴപ്പം ഇല്ല ഏതായാലും ചെറിയ ഒരു ഇതു മതി അപ്പം ആ ഒക്കെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽപോരേ ആ ഓക്കെ ഓക്കെ ഞാൻ ചെന്നിട്ട് വിളിക്കാ കേട്ടോ